ആ ഈ സണ്ണിച്ചായൻ അന്നേ പറഞ്ഞതാണ് നമുക്ക് ചോറൊക്കെ ഇത്രയും പകലൊക്കെയാണേലും നമുക്ക് ചൊറിച്ചിരി അളവ് കൂടുതലാണ് ഞാനന്നേ പറഞ്ഞതല്ലെ നമുക്ക് ഇപ്പോൾ പതിയെ ചപ്പാത്തിയിലേക്ക് ആകാമെന്ന് പക്ഷെ ചേച്ചിക്ക് എനിക്ക് തോന്നുന്നത് ചോറായിരുന്നല്ലോ കൂടുതൽ ഇഷ്ടം ഷുഗറ് ഭയങ്കര കൂടുതൽ ആണോ ആണോ അത് അതെന്നാ അതൊന്നും കുഴപ്പമില്ല ചേച്ചി അങ്ങനെ നമ്മൾക്ക് രാവിലത്തേത് മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തേലും ആഹാരം കഴിക്കാം അരിയാഹാരങ്ങൾ കുറയ്ക്കാം മാക്സിമം നമുക്ക് കുറയ്ക്കാം

ആ അതെല്ലാം ഞാൻ ഒരു ലിസ്റ്റ് എഴുതി തരാം അതൊക്കെ ആകുമ്പത്തേക്കും നമുക്ക് ഈ ഡയറ്റിനൊക്കെ നല്ലതാണ് നമുക്ക് നമ്മൾ ഇപ്പോൾ കുറേ അരിയാഹാരങ്ങളൊക്കെ കുറയ്ക്കുവല്ലേ അപ്പോൾ ഇങ്ങനത്തെ പച്ചക്കറിയുടെ കൂടെ ഇങ്ങനത്തെ ഐറ്റംസ് കൂടെ ഒക്കെ കിട്ടുമ്പത്തേക്കും നമുക്ക് ഒത്തിരി ക്ഷീണവും ഇതൊന്നും വരില്ല നല്ലതായിരിക്കും ആരോഗ്യത്തിനും നല്ലതാണ് മ്മ്

ഓക്കെ മ്മ് എല്ലാദിവസവും അങ്ങനെ ആയാൽ ശരിയാകത്തില്ലല്ലോ ഡയറ്റ് ഇടയ്ക്ക് മാറ്റാം നമുക്ക് എന്തേലും ആഹാരങ്ങൾ എന്തായാലും കുഴപ്പമില്ല മാക്സിമം അരിയാഹാരങ്ങൾ മാറ്റി എന്തേലും നിങ്ങൾക്ക് തരാനായിട്ട് ശ്രദ്ധിക്കാം നമുക്ക് ഇപ്പോൾ കൂടുതലും ഈ ഓട്ട്സൊക്കെ ഇച്ചിരിയും കൂടെ നല്ലതായിട്ട് നമുക്ക് ഹെൽത്തിന് ഒക്കെ പ്രശ്നമില്ലല്ലോ ഓട്ട്സൊക്കെ അരിയാഹാരങ്ങൾ രാവിലെയാണ് ഉച്ച ആകുമ്പത്തേക്കും നമുക്ക് സലാഡുകൾ പല തരത്തിൽ ഉള്ള സലാഡുകൾ ഉണ്ട് ഐറ്റംസൊക്കെ എനിക്കറിയാം പിന്നെ നമുക്ക് യൂട്യുബൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത്യാവശ്യം നോക്കിയിട്ടൊക്കെ ചെയ്യാം അങ്ങനെ കുറച്ച് സാലഡ്കളൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് നോക്കാം വൈകുന്നേരമാകുമ്പോൾ നമുക്ക് ചപ്പാത്തി മതിയായിരിക്കുമല്ലോ അല്ലേ അത് ഈ കറി അങ്ങനെയെന്തേലും ഇഷ്ടമുള്ളത് ഉണ്ടോ കറി എങ്ങനെ വേണം എന്ന് വല്ലതും ഉണ്ടോ എന്തേലും ഒക്കെ ആ ഇല്ലല്ലോ കാപ്പിക്കിനി മധുരം ഒന്നും പറ്റത്തില്ലല്ലോ ഇച്ചിരി കുറയ്ക്കാം അല്ലേ ഒട്ടും ഇടണ്ട ആ പിന്നെ ഇടയ്ക്ക് ജൂസുവൊക്കെ കുടിക്കാമല്ലൊ നമുക്ക് അപ്പം അതനുസരിച്ച് ഞാനത് റെഡി ആക്കിക്കൊള്ളാം അപ്പോൾ രാവിലേയും ഉച്ചയ്ക്കും വൈകിട്ടൊക്കെയും നമുക്ക് ഷുഗർ ഒക്കെ അങ്ങ് മാറ്റി എടുക്കാം ഓക്കെ എന്നാൽ ശരി നാളെ കാണാം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ചെയ്യാം ചെയ്യാം ഓക്കെ ശരി മ്മ്